കേരളം എന്ന സംസ്ഥാനത്തിൻറെ സംസ്കാരം രൂപപെടുത്തിയതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നവരാണ് അതായത് കെ കവികളായാലും കവികൾ അതായത് അവരെ സംഭാവന അതായത് കേരളത്തിൻ്റെ ഭംഗി മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുന്നത് അവരുടെ കവിതകളിലൂടെ അപ്പോൾ ആ ഒരു വള്ളത്തോൾ വള്ളത്തോൾ ആണെങ്കിലും എഴുത്തച്ഛൻ ആണെങ്കിലും അവരുടെ സൃഷ്ടികൾ കേരളത്തിൻറെ ഭംഗി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ സംസ്കാരം കേരള സംസ്കാരം മറ്റുള്ളവർ അറിയാൻ അറിയാൻ കാരണം അതിൽ ഏറ്റവും പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് ഇവരൊക്കെ അവരുടെ ആ കവിത രചനകളിലൂടെ അവരുടെ ആ വർണനകളിലൂടെ വർണനകളിലൂടെയും ഒക്കെയാണ് കേരള സംസ്കാരത്തെ കുറിച്ച് കൂടുതൽ ആൾക്കാർ അറിയുന്നതും അതേപോലെ തന്നെ കേരള സംസ്കാരം രൂപപ്പെടുത്താനും അതായത് അതിനെ പരിപോഷിപ്പിക്കാനും ഒക്കെ അവരുടെ ആ വർണ്ണനകളും ഒത്തിരി സഹായകമായിട്ടുണ്ട് കെ കേരള കേരളത്തിൻ്റെ ചരിത്രം ചരിത്രം വിളിച്ചോതുന്ന പല തരത്തിലുള്ള കവിതകളാണെങ്കിലും അല്ലെങ്കിൽ കവി ഉപന്യാസങ്ങൾ ആണെങ്കിലും പല തരത്തിലുള്ള പല രീതിയിലും നമ്മൾ ഓരോ രചനകളായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിൻറെ ഒരു സംസ്കാരം കേരളത്തിൻറെ കൾച്ചർ ഇതെല്ലാം എ എത്രത്തോളം ഉണ്ടെന്നും അതെങ്ങനെ എങ്ങനെ രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്